ഒന്നാമത്തെ തൊഴിലുറപ്പ് പദ്ധതി ഇപ്പം ഒരു തൊഴിലില്ലാത്ത ആൾക്കാർക്ക് നാട്ടിൽ തന്നെ ചെറിയ ചെറിയ ജോലികളൊക്കെ ചെയ്തിട്ട് മാസത്തില് അല്ലെങ്കിൽ വർഷത്തില് ഇത്ര ഇത്ര ദിവസം ജോലി ചെയ്യുക അതനുസരിച്ച് അവർക്കുള്ള ശമ്പളം കൊടുക്കുക അത് ഒരു പദ്ധതിയാണ് സർക്കാരിൻ്റെ ഒരു പദ്ധതിയാണ് പിന്നെ കുടിവെള്ളപദ്ധതി പിന്നെ അങ്ങനത്ത പൈപ്പ് ലൈൻ കാര്യങ്ങളൊക്കെ അത് പിന്നെ ഇപ്പോൾ ഇപ്പോൾ ഔഷക ശക്തി ആ ഒരു പദ്ധതി ഉണ്ട് പിന്നെ അങ്ങനെ ഒക്കെ ഒരുപാട് പദ്ധതികള് നമ്മുടെ നാട്ടില് അങ്ങനെ സർക്കാരിൻ്റെ ഇതില് കൊണ്ടുവരുന്നുണ്ട് അപ്പം അതിലൂടെ ഒക്കെ ജനങ്ങൾക്ക് തൊഴിലില്ലാത്ത ആൾക്കാർക്ക് വെ വെറുതെ വീട്ടില് ഇരിക്കുന്ന ആൾക്കാർക്കും പ്രായമായ ആൾക്കാർക്കൊക്കെ ചെറിയ ചെറിയ ജോലികളൊക്കെ ചെയ്ത് സ്വന്തം കാര്യങ്ങളൊക്കെ നടത്താവുന്ന രീതിയിൽ ഉള്ള അങ്ങനത്ത പദ്ധതികള് പിന്നെ വിധവകൾക്ക് ഉള്ള പെൻഷൻ കാര്യങ്ങളൊക്കെ പിന്നെ കുടിവെള്ള പദ്ധതിയിലൂടെ കുടി കുടിക്കാൻ വെള്ളം എന്നത് നല്ല വെള്ളം കിട്ടാത്ത ആൾക്കാർക്ക് ഒക്കെ അല്ലെങ്കിൽ വെള്ളത്തിനു ബുദ്ധിമുട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ കുടിവെള്ളം പൈപ്പ് വഴി വെള്ളം ലഭിക്കുന്നു അപ്പം ആൾക്കാർക്ക് അത് വളരെയധികം പ്രയോജനകരമാണ് കാരണം അവർക്ക് വെള്ളവും കാര്യങ്ങളൊന്നും കുടിവെള്ളം നമുക്ക് മനുഷ്യന് ഏറ്റവും അടിസ്ഥാനസൗകര്യങ്ങളില് ഒന്നാണല്ലൊ കുടിവെള്ളം എന്നുപറയുന്നത് അപ്പം അത് ലഭിക്കുമ്പം അവർക്ക് കൂടുതല് നല്ല കൂടുതല് പ്രയോജനമാണ് അവർക്കത്